ഹലോ ആ ശിവാനി സുഖം അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം ബിസ്നസ് ഒക്കെ എങ്ങനെ ആ വർക്ക് ഇപ്പം പിന്നെ തിരക്ക് കൂടുതലാണ് അതിൻ്റെ ഇടയ്ക്ക് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞങ്ങളുടെ സ്റ്റാഫ് ലീവിലാണ് അപ്പം നല്ല പണിയാണ് മ് പിന്നെ എനിക്ക് വയ്യാതയും കൂടെയായി പനിയായി എനിക്ക് ഈ യൂറിന് ഇൻഫെക്ഷൻ്റെ പ്രശ്നം ഇവിടെ ബാത്റൂമിൻ്റെ പ്രശ്നം ഞാൻ എന്ന് പറഞ്ഞില്ലേ അപ്പുറത്തും ഇപ്പറത്തും ഉള്ള ബാത്റൂമാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് മ് അപ്പോൾ കുറേ ബാത്ത് ഇത് ആ ഹാ ഹ ആ ആ ഹ ആ ഇവിടുത്തെ ബിൽഡിങ്ങ് ഓണറിൻ്റെ അടുത്തൊരു പരാതി പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെയും ഷോപ്പുകളുണ്ടല്ലോ എല്ലാവരും കൂടെ ചേർന്ന് പറയാം എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു പരിഹാരം ആ ഹ ആ ആ ആ ആ ആ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഉണ്ട് മ് മ് ആ ശരിയാക്കിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് ആണത് വെള്ളം പോലും കുടിക്കാൻ കുടിക്കാൻ തോന്നുന്നില്ല കാരണം ബാത്റൂമിൽ പോകാനുള്ള ഒരു പ്രശ്നമുള്ളത് കൊണ്ടെ മ് മ് ആഹ് അതാണ് മ് മ് മ് മ് മ് മ് പിന്നെ എന്താ വിശേഷം അതെ ആ ശരി ഓക്കെ